നമ്മുടെ കാലത്തെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറ് മൊബൈൽ ഫോണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഈ സമയത്താണെങ്കില് കമ്പ്യൂട്ടറ് കീബോർഡ് എല്ലാ സംഭവങ്ങളും ഈ കാലഘട്ടത്തിലുണ്ട് അത് ഇപ്പം നമ്മളെ ബാധിച്ചതെന്ന് പറഞ്ഞാല് ഇപ്പഴാണെങ്കിൽ ഫോൺ കോളും കമ്പ്യൂട്ടറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ കുറെ ഉപകാരങ്ങള് അതിനെ കൊണ്ടും ഉണ്ട് നമ്മള് ആ പഴയ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഫുള്ളും എഴുതലും പിടിക്കലും അങ്ങനത്തെ കാര്യങ്ങളന്നെയിരുന്നു ബുക്കും പേനയും എടുത്ത് എഴുതലും എഴുതിയിട്ട് വേണം എല്ലാം ഉണ്ടാക്കാന് ഇപ്പഴാണെങ്കിൽ ഫോണിൽ കൂടെ ടൈപ്പ് ചെയ്തിട്ടും വോയിസ് മെസ്സേജ് അയച്ച് കണ്ടൊക്കെ നമുക്ക് ഓരോന്നക്കെ ചെയ്യാം പക്ഷെ ആ കാലത്ത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു ഇപ്പം ജോലി സമയ ജോലി സമയമൊക്കേ കുറവ് ആണ് അതുകൊണ്ട് ഉള്ളത് പഴയ കാലത്താണെങ്കിൽ ജോലി സമയം കൂടുതലായിരുന്നു ഇപ്പഴാണെങ്കിൽ ജോലി കുറവാണ് ഇങ്ങനെ സാങ്കേതിക വിദ്യക്കേ ഉള്ളത് കൊണ്ട്